ഞാനിപ്പോൾ താമസിക്കുന്നത് കാസർകോടാന്ന് ഇപ്പോൾ കാസർഗോഡ് നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കോളേജ് ഉണ്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് വിദ്യാ നഗർ അത് പൂർണ്ണമായിട്ടുള്ള ഗവൺമെൻറ് കോളേജാന്ന് അപ്പം അവിടെ എനിക്ക് ഇടക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇതിനു മുൻപ് ഞാൻ കാഞ്ഞങ്ങാട് താമസിക്കുന്നത് അപ്പം അവിടെന്ന് കുറെ ലോങ്ങ് ആന്നോണ്ട് അവിടെ പിന്നെ അവിടുന്ന് മാറി കാഞ്ഞങ്ങാട് കോളേജിൽ ചേർന്നു പക്ഷേ വേറെ എൻ്റെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലും എന്നാലും അത്യാവശ്യത്തിനുള്ള തല്ല് തല്ലിത്തരങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയാനും പറ്റില്ല ഇങ്ങനെയുള്ള ഒരു കോളേജ പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ കച്ചവട വൽക്കരിക്കുകയും പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയവും പിന്നെ കുട്ടികളും അങ്ങോട്ടുമിങ്ങോട്ടും ഉള്ള ഒരു വടംവലിയും വാശി ക് കളിയും അവരുടെ ഞാനാണ് നേതാവ് എന്നുള്ള ഒരു രീതിയിലുള്ള ആ ഒരു നടപടി ഒക്കെയായിട്ട് ആണ് ഇപ്പോൾ കോളേജ് അത് മുന്നോട്ടുപോകുന്നത് ഇപ്പോൾ പഠനക്കാട് ഗവൺമെൻറ് കോളേജ് എന്നുള്ളതും അത് മാനേജ്മെൻറ് പകുതി മാനേജ്മെൻറ് ആയിട്ടുള്ളൊരു കോളേജാന്ന് അപ്പം അവിടെ ഇത്രത്തോളം ഇത്ര വലിയ ഒരു അടിപിടി സംഘർഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ കൂടുതലായിട്ട് പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരുപാട് ക്ലാസുകൾ കുട്ടികൾക്ക് നഷ്ടമാകുന്നുണ്ട് അപ്പം അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് കൂടുതലും ബാധിക്കുന്നത് കുട്ടികളുടെ ഭാവി ഭാവിയിലേക്കുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് അത് മാറും കാരണം ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് വിദ്യാഭ്യാസം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് സമൂഹത്തിലെ ഇറങ്ങി നടക്കണമെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റില്ല മുൻപത്തെ കാലങ്ങളിൽ ആയിരുന്നെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നത് ഒരു വലിയൊരു പുണ്യം ചെയ്ത ആൾക്കാരായിരിക്കും കുറച്ച് നൂറിൽ ഒരാൾ മാത്രമേ പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസം നേടുകയും കോളേജിലെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പത്താം ക്ലാസ് പോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലക്ചറിനേക്കാളും മോളിലുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ടാണ് മുൻപത്തെ കാലത്ത് കാണുന്നത് കണ്ടിരുന്നത് കാരണം ആ കാലത്ത് പഠിക്കാൻ സാമ്പത്തികശേഷിയുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പോലും നെട്ടോട്ടമൊടുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അത് കാരണെന്തെച്ചാൽ അന്നത്തെ ദാരിദ്ര്യവും പട്ടിണിയും പിന്നെ ജന്മിത്തരം മേൽക്കോയ്മ അങ്ങനെയുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ നമുക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് വിദ്യാഭ്യാസം നമുക്ക് കുറച്ച് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷ്ക്കാരാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ്ക്കാരോട് നമ്മൾ നല്ലൊരു കടപ്പാട് ഉണ്ട് നമുക്ക് കോളേജുകളിൽ ഇപ്പോൾ മുൻപത്തെ കാലത്തൊക്കെ കോളേജുകളിൽ പോകുന്നത് വളരെ കുറവായിരുന്നു എൻ്റെ എൻ്റെ ഒരു ബാല്യകാലത്ത് ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പണിക്കുപോകും പെൺകുട്ടികൾ ടൈലറിംഗ് ടൈപ്പിംഗ് അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് പോയി പോയിട്ട് അതിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പിന്നെ സാധ്യതയും അതിൻ്റെ മഹത്വവും ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ അന്നത്തെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അവർക്കും വിദ്യാഭ്യാസം കുറവായിരുന്നു അവരും നിത്യ ജീവിത ചെലവിന് വേണ്ടിയിട്ട് പാടത്തും പറമ്പിലും കൃഷിയിടങ്ങളിലും മറ്റു വീടുകളിലൊക്കെ പോയിട്ട് പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല കൂടുൽ വിദ്യാഭ്യാസം കൊടുക്കാൻ മക്കൾക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലമെന്നു പറയുന്നത് കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇപ്പം വിദ്യാഭ്യാസം ഇന്ന് പുരോഗമിച്ചോണ്ട് വരുന്നതാന്ന് എല്ലാ എല്ലാ മേഖലയിലും പിന്നെ സൗജന്യമായിട്ടുള്ള യൂണിഫോം സൗജന്യ ഭക്ഷണം സൗജന്യമായിട്ടുള്ള പുസ്തകം ബാഗ് കൂടുതൽ ദൂരം നടന്നു പോകുന്ന കുട്ടികൾക്ക് സൈക്കിള് വരെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം പുരോഗമിച്ചു അത് ആൾക്കാർ എത്രത്തോളം അതിനെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അതിനെ പുരോഗമിക്കാൻ അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നു പറയുന്ന ആ ഒരു അർത്ഥ വാക്യം ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിയുന്നത് ഇപ്പം പട്ടിണി കിടക്കുന്ന വീട്ടിൽ പോലും കുട്ടികൾ സ്കൂളിൽ പോകുന്നു പട്ടിണി കിടക്കുന്ന വീട് ഇല്ല ഇന്ന് എന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് കോളേജുകളിലായാലും നമുക്ക് പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തായാലും കോളേജുകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ട് പ്രൈവറ്റ് ഇത് ഇപ്പോൾ പ്രൈവറ്റായിട്ടു പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം അങ്ങനെയാന്ന് പ്രൈവറ്റിൽ പ്രീഡിഗ്രി പഠിച്ച് ഗവൺമെൻറ് കോളേജിലേക്ക് ഉന്നത പഠനത്തിനായി എനിക്ക് അഡ്മിഷൻ കിട്ടിട്ടുണ്ട് അങ്ങനെ പഠിച്ച് ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നുണ്ട് അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത് സാംസ്കാരികപരമായി ജീവിതത്തെ മുന്നോട്ടുകൊണ്ടുപോവണം വിദ്യ മാത്രം അഭ്യസിച്ചാൽ പോരാ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ജീവിതത്തെ കെട്ടിപ്പെടുക്കാം എന്നൊരു വിദ്യ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്